അതിൽനിന്ന് അത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നത് അതായത് കൃത്യമായ ഒരു ടേമായിട്ട് തിരിക്കുകയാണ് ഫസ്സ്റ്റ് ടെം സെക്കൻഡ് ടെം ഒരു ഒരു വാർഷികം ഒരു ഒരു വർഷത്തില് മൂന്ന് പരീക്ഷ അതായത് ഫസ്റ്റ് ടെം സെക്കൻഡ് ടെം പിന്നെ ആനുവൽ എക്സാം അങ്ങനെ മൂന്ന് രീതിയിൽ തരം തിരിച്ചിട്ട് ഈ പാഠപുസ്തകത്തെ ആസ്പദമാക്കി ചോദ്യോത്തരങ്ങൾ അതായത് ചോദ്യം എക്സാം പരീക്ഷകൾ വെക്കുകയും കുട്ടികൾ ആ പരീക്ഷയില് അവർക്ക് കിട്ടിയ മാർക്കിനെ അടിസ്ഥാനമാക്കി അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് കടന്നുപോവുന്ന അല്ലെങ്കിൽ അവരെ വിലയിരുത്തുന്ന ഒരു രീതിയാണ് പരീക്ഷയിലൂടെ വിലയിരുത്തുന്ന രീതിയാണ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ സംമ്പ്രദായത്തിലുള്ളത് പക്ഷെ ഇതിൻ്റെ ഇപ്പോൾ ഗവൺമെൻറ്റ് സ്കൂളുകളിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇതിൻ്റെ ഒരു പ്രധാന ഒരു ഒരു ചെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷയുടെ ഒരു സ്ട്രെസ് കുട്ടികൾക്ക് കൂടുന്നുണ്ട് കാരണം ഇപ്പോൾ ഇനി ഈ പരീക്ഷയിലാണ് അവര് ഇത്രയും നാള് പഠിച്ചിട്ട് പഠിച്ചിട്ട് ഉള്ളത് പഠിച്ചിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് ഈ പരീക്ഷയിൽ പരീക്ഷയുടെ മൂല്യനിർണയത്തിലുടെയാണ് അതുകൊണ്ടുതന്നെ കുട്ടികൾക്ക് അതിൻ്റെ ആ പരീക്ഷയുടെ സമയത്ത് ടെൻഷൻ അധികമാവുകയും അവർക്ക് അവരുടെ മാനസികാവസ്ഥയെ അത് വളരെരീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നു അവർക്ക് കൃതിയമായൊരു വിദ്യാഭ്യാസം അതായത് അവര് മനസിലാക്കിത്തന്നെ അത് പരീക്ഷക്ക് വേണ്ടി തയാറെടുക്കുന്ന മാതിരിയാണ് അവര് പഠിക്ക്യ അതായത് ഈ പരീക്ഷക്ക് ഞാൻ ഇത്രയും പഠിച്ചാൽ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടു എന്നൊരു രീതിയിലാണ് അത് തുടർന്ന് കൊണ്ടുപോകുന്നത് അതായത് അവർക്ക് ഭാവിയിലേക്ക് ഇപ്പോൾ ഞാനിത് പഠിച്ച എ ഞാൻ മനസിലാക്കി പഠിക്കണം എനിക്കിത് ഭാവിയിൽ ഇത് യൂസ് ആവും എന്നൊരു ചിന്ത അവര് ഇപ്പോൾ ചിന്ത അത് അതിലുടെ വര വരാതിരിക്കുകയാണ് അവർക്ക് കാരണം അവരുടെയൊരു മെയിനായിട്ടുള്ളൊരു ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ പഠിക്കുക പരീക്ഷയെഴുതുക പാസ്സാവുക അതിനപ്പുറത്തേക്ക് നമ്മളിത് പുറത്തൊരു ലോകമുണ്ട് ഈ ലോകത്ത് നമ്മൾ പഠിച്ചതെല്ലാം നമ്മൾ അവിടെ യൂസ് ചെയ്യണം നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മള് കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ഇത് കുട്ടികൾക്ക് ഇപ്പോൾ ഈയൊരു നമ്മടെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇപ്പോൾ നേരിടുന്ന ഈ രീതിയി രീതി ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിനോട് അവർക്ക് പൊരുത്തപെടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ അതായത് ഈ പരീക്ഷയുടെ പേടി അവരിൽനിന്ന് ഇല്ലാതാക്കുകയും ഇത് പരീക്ഷക്ക് വേണ്ടി എക്സാം പേപ്പറിന് വേണ്ടി മാത്രം കാണിക്കാൻ ഒതുക്കാതെയും തുടർന്ന് അവരുടെ ഭാവിയിലേക്ക് ഈ സമൂഹത്തിലവർക്ക് വേണ്ടുന്ന മൂല്യങ്ങൾ ഈ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ പകർന്നുകൊടുക്കാൻ കഴിയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം